നമ്മുടെ നാട്ടിൽ അങ്ങനെ കൂടുതൽ എന്താ പറയുക സിനിമകൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഓൺലൈനിലിപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് കരകൗശല വസ്തുക്കളൊന്നും ഉപയോഗിച്ചിങ്ങനെ വലിയ ഇതായിട്ടില്ല പിന്നെ എന്താ പറയുക കേരളത്തിൽ അറിയാമല്ലോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഗാന്ധി ഗ്രാമം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അവിടെ ഇതുപോലത്തെ ആർട്ട് വർക്കുകൾ ചെയ്തുവരുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ അവിടെ നല്ല രീതിക്കുതന്നെ കലാപരമായിട്ടും കായികപരമായിട്ടും എന്താ പറയുക കായികം എന്നു പറയാൻ പറ്റില്ല കല എന്താ പറയുക കരകൗശലം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രീതിയ്ക്ക് തന്നെ സെയ്ല് ചെയ്തു പോകുന്നുണ്ട് അതുപോലത്തെ കുറേ സാധനങ്ങൾ അവിടെനിന്ന് കളക്ട് ചെയ്തിട്ടാണ് എന്താ പറയുക മൂവീസിലും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആശാരിപ്പണിക്കാർ ആയിക്കോട്ടെ അങ്ങനെയുള്ളവരൊക്കെ മരത്തിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നല്ല രീതിക്കുതന്നെ സെയ്ലും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് വീട് മോഡിഫൈ എന്താ പറയുക മോഡിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിക്കുതന്നെ പല മൂവീസിലും എന്താ പറയുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക പരസ്യങ്ങളിലായിക്കോട്ടെ എന്തിലാണെങ്കിലും ഇത്തരത്തിൽ ഉള്ള ആർട്ട് വർക്കുകളായിക്കോട്ടെ എന്താ പറയുക കരകൗശല വസ്തുക്കളൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ഉപയോഗിച്ച് സിനിമകളിൽ നല്ല രീതിയ്ക്ക് തന്നെ എന്താ പറയുക പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനത്തെ നമ്മുടെ കരകൗശലങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നല്ല രീതിയ്ക്ക് തന്നെ മുന്നോട്ടുവരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം